കൃഷിയെ പറ്റി പറയുമ്പോൾ കൃഷി എന്നുള്ളത് ഇപ്പോഴുള്ള ലോകത്ത് തന്നെ ഈ ഒരു മോഡേൺ സമുദായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആധുനിക ലോകത്തെ ഇങ്ങനെയാക്കി എടുക്കുന്നതിൽ കൃഷിക്ക് കൃഷി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല കാരണം ഒരു മനുഷ്യൻ എന്നുള്ളതും തൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ തലമുറകളുടെ മനുഷ്യ മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കം മുതലേ കൃഷി കൃഷി എന്നുള്ളതിന് അതിന് അതിൻ്റേതായ റോളുകൾ കൃഷി നിർവഹിച്ചു കൊണ്ടിരുന്നു കാരണം തൻ മനുഷ്യൻ തൻ്റെ കൃഷി തൻ്റെ ഒരു ഭക്ഷ്യമാർഗ്ഗമാണ് അല്ലെങ്കിൽ അതിജീവന മാർഗ്ഗമായിക്കൊണ്ട് കൃഷിയെ കണ്ടെത്തിയതിന് ശേഷമാണ് ഇ മനുഷ്യൻ പിന്നീട് ധാരാളം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പിന്നീട് ഞാൻ പറയുന്നതു പോലെ കൃഷിയെ കൃഷി അതിലൂടെയാണ് മനുഷ്യൻ തൻ്റെ അതിജീവനം കണ്ടെത്തുന്നതെങ്കിലും ധാരാളം രീതിയിലുള്ള കൃഷി ധാരാളം തരത്തിലുള്ള ധാരാളം പല രീതിയിൽ കൃഷി ചെയ്ത കൊണ്ട് മനുഷ്യൻ അതിജീവന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നുണ്ട് കാരണം അരിയിലൂടെ മാത്രമല്ല അല്ല മനുഷ്യൻ അതിജീവിക്കുന്നത് പണ്ടുകാലങ്ങളിൽ മറ്റ് ധാരാളം പ്രവർത്തനങ്ങളിലൂടെയും കൃഷി ചെയ്തിട്ടും മനുഷ്യൻ അതിജീവിച്ചും നമുക്ക് അറിയാവുന്നതാണ് പിന്നീട് നമുക്ക് അറിയാവുന്നതു പോലെ ഇപ്പോഴുള്ള തലമുറ അല്ലെങ്കിൽ ഈ ഒരു നവകാലം കൃഷിയെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചക്കൾ നമുക്ക് കാണാവുന്നത് കാരണം കൃഷി എന്നുള്ളത് ഒരു തരം താഴ്ന്ന ജോലിയാണ് എന്നുള്ള രീതിയിൽ പല തലമുറ പല ആളുകൾ അല്ലെങ്കിൽ പല രീതിയിൽ കാണുന്നതായി നമുക്ക് ഈ കാണാവുന്നത് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാവുന്നതുമാണ് അപ്പോൾ അതിന് അങ്ങനെ കാണേണ്ടതുണ്ടോ എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കണം കാരണം ഇല്ല കാരണം അങ്ങനെ ഒരു ആ രീതിയിൽ നാം അതിന് കാണേണ്ടതില്ല കാരണം കൃഷിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് വച്ചാൽ അതൊരു നാടൻ മനുഷ്യരോ അല്ലെങ്കിൽ ഏതൊരു ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് ജീവിച്ചാൽ മനസ്സില്ലകും ചോദിച്ചാൽ മനസ്സിലാവുന്നത് എന്താണെന്ന് കാരണം ഒരു കൃഷി ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു ഭക്ഷണം എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് വേണം അതായത് കൃഷിയാണ് കാരണം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന ഭക്ഷണം അതിന് പിന്നിൽ ഒരു കൃഷി ഉണ്ടായതുകൊണ്ടല്ലേ അത് ലഭിക്കുന്നത് അപ്പം കൃഷിയുടെ മഹത്വം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്താണെങ്കിലും കൃഷി സ്വാഭാവികമായി കൃഷി ഇങ്ങനെ തരം താഴ്ത്തി ആവശ്യം മറിച്ചു കൃഷിയെ നാം ഒരു വരുമാന മാർഗമായി കൊടുക്കുക ജീവിത മാർഗ്ഗമായിട്ടല്ല എന്ന് മറിച്ചു ഒരു വരുമാന മാർഗ്ഗമായി കൊണ്ട് കൃഷിയൊക്കെ ഉണ്ട് നമുക്ക് അതിൽ നിന്ന് ധാരളം സമ്പത്തകൾ ഉണ്ടാക്കും അത് ഒരു വലിയ ഒരു സോ കാരണം ഏത് നല്ല ഒരു സ്ഥലം ലഭിച്ചാൽ നമുക്ക് അതിൽ നിന്ന് വരുമാന മാർഗങ്ങളിൽ ധാരാളം വരുമാന മാർഗ്ഗങ്ങളിലും കൃഷിയിലൂടെ നമുക്ക് ലഭിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കൃഷി എന്നുള്ളത് ഒരു അരി അരി അരി കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം നമുക്ക് ആ അരി വിൽക്കാം ഒരു ധാരാളം ഏക്കറുകളുണ്ടങ്കിൽ ആ അരി വിറ്റുകൊണ്ട് നമുക്ക് ചെയ്യാം ഇപ്പം അത് വിറ്റിട്ടില്ലെങ്കിൽ നമുക്ക് അത് ജീവിത മാർഗ്ഗത്തിൽ ഉപയോഗിക്കാം ഇനി കൃഷി കൃഷിയാണല്ലോ സ്വാഭാവികമായി നമ്മൾ ഒരു മീൻ കൃഷിയാണെങ്കിൽ ആ മീൻ വിറ്റിട്ടുള്ള കാശ് ധാരാളം അങ്ങനെ ധാരാളം ഇനി ഇപ്പോൾ ഒരു സ്ഥലം അതിൽ കുറച്ചു എന്ത് വാഴകൾ വാഴകൾ ആ വാഴ വാഴയിൽ എന്തുന്ന പഴം വിറ്റ് നമുക്ക് കാശാക്കാം അല്ലെങ്കിൽ അങ്ങന ധാരാളം ധാരാളം അവസരങ്ങൾ കൃഷിക്ക് നമുക്ക് തുറന്നു വച്ചിട്ടുണ്ട് ഏതൊരു സമയത്തും കൃഷിയിൽ കൂടെ പ്രാധാന്യം ലോകത്ത് ചെറുതല്ല അത് ലോകാവസാനം വരെയും കൃഷിയുടെ പ്രാധാന്യം അങ്ങനെ തന്നെ നിൽക്കും